മുട്ടുവേദന ശമിപ്പിക്കാനായിട്ട് സാധാരണ പറയുന്നത് ഇപ്പോള് കാല് നിങ്ങള് കിടക്കാന് നേരം പൊക്കി വെയ്ക്കണം രണ്ടാമത്തേത് ഒരു എരിക്കിന്റെ ഇല ഇല്ലേ ആ എരിക്കിന്റെ ഇല ഒന്ന് ചൂടത്ത് വെച്ച് വാട്ടുക എന്നിട്ട് മുട്ടേലിങ്ങനെ പിടിച്ചുകെട്ടുക അതായത് മുട്ടേല് നിരത്തിവച്ചിട്ട് അത് ഒരു തുണിവച്ച് കെട്ടിയിട്ട് കാല് നിവര്ത്തിവയ്ക്കുക പിന്നെ ചില മുറിവെണ്ണകളോ ഓയില് ഓയിലുകളൊക്കെ അങ്ങോട്ട് തേക്കുക പിന്നെ ഇപ്പോള് സാധാരണ ആയിട്ട് ഇപ്പോള് എല്ലാവരും ഓര്ത്തോയെ കാണിക്കും ഓര്ത്തോ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കും അത് അല്പസമയത്തേക്കുള്ളൊരാശ്വാസം മാത്രം ഇനി ലാസ്റ്റാണ് മുട്ട് മാറ്റി വയ്ക്കുക ഓക്കേ